നമ്മൾ ഇപ്പോ പശുവിനെ വളർത്തുകയാണെങ്കിൽ പശുവിൽ നിന്ന് നമുക്ക് പാൽ ലഭിക്കുന്നു ഒന്നാമത്തെ സംഭവം അതാണ് പാലാണ് നമക്ക് ആദ്യം ലഭിക്കുക ആ പാലിൽ നിന്ന് വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം പാലിൽ നിന്ന് തൈര് മോര് വെണ്ണ നെയ്യ് എന്നിവ ഇവയ്ക്കെല്ലാം നല്ല വില കിട്ടും പാലിനെ അപേക്ഷിച്ച് പ പാലിൻ്റെ ഇരട്ടി വിലയാണ് തൈരിനും നെയ്യിനും ഒക്കെ ലഭിയ്ക്കുന്നത് ഇനി പശു നമുക്ക് ചാണകം തരുന്നു ആ ചാണകം നമുക്ക് ഉണക്കി എടുക്കുകയാണങ്കിൽ അത് ചന്ദനത്തിരി ഉൽപ്പാദനത്തിന് വേണ്ടി ചാണകം കൊണ്ടുപോകുമ്പോൾ അതിനു കൂടുതൽ വെല ലഭിയ്ക്കുന്നു മാത്രമല്ല ഉണങ്ങിയ ചാണകത്തിന് വളരെ അധികം വിലയാണ് ലഭിയ്ക്കുക ഇനി കോഴിയിൽ നിന്ന് നമക്ക് മാംസം മുട്ട ഒക്കെ ലഭിയ്ക്കുന്നു മാത്രമല്ല കോടി കോഴിയുടെ കാഷ്ടത്തിന് വളരെ അധികം വിലയുണ്ട് ഇത് ഇങ്ങനെയാണ് നമുക്ക് പാലിൽ നിന്ന് പാൽ ഉൽപ്പന്നങ്ങൾ ലഭിയ്ക്കുന്നു ആ പാൽ ഉത്പന്നങ്ങൾക്ക് മാർക്കറ്റിൽ വളരെ അധികം വിലയാണ് അതിൽ നിന്ന് നമക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാം